ആ ഹലൊ ആ ഡ്രൈവിങ് സ്കൂളാണ് പറഞ്ഞോളു ആ ബൈക്കും കാറും ഇത് ഇതോടിക്കാൻ കഴിയുമോ ബൈക്കും കാറും ഓടിക്കാൻ കഴിയുമോ

ആ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് കാറുമ്മേൽ ആദ്യം നമ്മളൊരു ട ഇതാക്കും നമുക്ക് രണ്ട് ടെസ്റ്റ് ഉള്ളത് റോഡ് ടെസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ ടെസ്റ്റ് ഉണ്ട് റോഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മള് കിലോമീറ്ററിനനുസരിച്ചാണ് പൈസ ഈടാക്കുക പിന്നെ നമ്മള് മൊത്തം ഇതും മറ്റേ ഡ്രൈവിങ്ങ് പഠിക്കലും അതുപോലെ തന്നെ ഡ്രൈവിങ്ങിന്റെ മൊത്തത്തിൽ ഉള്ള എനെബലേഷന് പതിനാലായിരം ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപയാകും ആ അത് മതി അതിന് ഇപ്പം അയ്യായിരം രൂപ കൊടുത്താല് നമുക്ക് ആർട്ടിയോന്റ അടുത്ത് നമ്മൾ അത് കെട്ടണം അത് പിന്നെ അതിന് ശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാല് ഡ്രൈവിങ്ങിന് നമ്മള് കിലോമീറ്ററിനാണ് ആറ് കിലോമീറ്ററിന് നമുക്ക് ആറ് കിലോമീറ്ററിന് നമ്മള് മുന്നൂറ് രൂപയാണ് പേ ചെയ്യുക അങ്ങനെ ഏകദേശം നമുക്കൊരു പന്ത്രണ്ടൊ പതിമൂന്നൊ ക്ലാസോ നിങ്ങൾക്ക് തരേണ്ടി വരും എന്നാലേ നമുക്ക് അങ്ങനെ ആകുമ്പോൾ വലിയൊരു അമൌണ്ട് പന്ത്രണ്ട് ക്ലാസ്സ് പറയുമ്പോൾ ഏകദേശം മൂവായിരത്തി മൂവായിരം നാലായിരം രൂപേന്റെ അടുത്തായില്ലെ അങ്ങനെ പന്ത്രണ്ട് ക്ലാസ്സ് അത് നിങ്ങൾ ആ അത് നമ്മള് നമ്മള് മോണിങ്ങിൽ എങ്ങനെ ആണെന്ന് വെച്ചാല് രാവിലെ ഒരു സെവൻ തേട്ടി റ്റു ഒരു ഇപ്പം എന്താ ഇപ്പോൾ ടെൻ തേട്ടി വരെയാണ് നമ്മള് സാധാരണ എടുക്കല് പിന്നെ ഈവനിങ്ങാകുമ്പോൾ നമ്മളൊര് നാലര മുതല് ഒരാറ് മണി വരെ ഇരുട്ടാവുന്നതിന് മുമ്പ് കാര്യം നിർത്തുന്ന രീതിയിലാകും നിങ്ങൾ എപ്പോളാണ് ഫ്രീ ആകുക ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ആ നാലര മുതല് ആ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ക്ലാസുണ്ടാവില്ല ഏകദേശമോരു ആഴ്ചയിലൊര് മൂന്ന് ദിവസം മാത്രമെ ക്ലാസുണ്ടാവുകയുള്ളു കാരണം നമുക്ക് വേറെ കുറെ സ്റ്റുഡൻസ്സുള്ള താണല്ലൊ അപ്പം അങ്ങനെ നമ്മള് ഷെഡ്യൂൽ ചെയ്ത് നമുക്ക് ഓൾറെ നമ്മള് വാട്ട്സപ്പില് നിങ്ങളെ അറിയിക്കും എപ്പളാണ് ക്ലാസ്സുള്ളതെന്ന് ഒക്കെ ഷെഡ്യൂള് ചെയ് ഷെഡ്യൂള് ചെയ്തതിന് ശേഷം ഏയ് ഇപ്പോൾ ഇത് ഡ്രൈവിങ്ങൊന്നും പഠിക്കാൻ പ്രൂഫൊന്നും വേണ്ട മറ്റ് ഡ്രൈവിങ്ങ് ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആധാർ അതേപോലെ തന്നെ നമ്മളുടെ എസ് എസ് എൽ സി പ്ലസ് ടൂ അതൊക്കെ ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങളെല്ലാം റെഡിയായിട്ട് തരും ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശെരി ശെരി ശെരി